തോട്ടക്കൃഷി തുടങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നാമത് വരുമാനത്തിൻ്റെ കാര്യം നമ്മൾ പിന്നെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾക്കൊരു ചെറിയൊരു വരുമാനം കിട്ടും രണ്ടമതായിട്ട് നമ്മൾ ജൈവ പച്ചക്കറി ആകുമ്പോൾ അത് നമ്മളെ കൂടുതൽ കടകളിൽ കിട്ടുന്ന വിഷാംശമുള്ള പക്കറിക്കളാണ് അപ്പോൾ അത് വിഷാംശമുള്ള പച്ചക്കറി കഴിച്ചിട്ട് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാം ഓരോ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ ജൈവ പച്ചക്കറി ആകുമ്പം വിഷാംശം ഇല്ല ആ അപ്പം അത് ശരീരത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് അത് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മളും കഴിക്കുക വേറെ ആൾക്കാറും കഴിച്ച് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഒരു സംതൃപ്തിയും സന്തോഷവും എല്ലാം ഉണ്ടാകും ആ പിന്നെ നമ്മളിപ്പോൾ വിഷാംശമുള്ള പച്ചക്കറിയെന്നു പറഞ്ഞാൽ അതിൻ്റെ കായ്കളെല്ലാം ഭയങ്കര വലിപ്പമായിരിക്കും പക്ഷേ നമ്മളെ ജൈവ പച്ചക്കറി ആകുമ്പം അത്ര വലിപ്പം ഉണ്ടാവില്ല പക്ഷേ അത് നല്ല പോഷക ഗുണമുള്ളതായിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിഷാംശമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിയുമ്പം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ അതിൻ്റെ ഭംഗിയും അതു മാത്രമേയുള്ളൂ അത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം വരും നമ്മളെ പച്ചക്കറി കാണുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാകില്ല ചെറിയതായിരിക്കും പക്ഷേങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ നല്ല ഇത് ശരീരത്തിന് നല്ലതാണ്